യ് കെ എസ് ഇ ബിയുടെ ആപ്ലിക്കേഷൻ ഉണ്ട് അത് എനിക്ക് വലിയൊരു ആശ്വാസമാണ് അത് കാരണം നേരത്തേ എന്നുവെച്ചാൽ നമ്മൾ പിന്നെ ബിൽ അടയ്ക്കാന് പോവണമെങ്കില് ക്യൂ നിൽക്കണം ക്യൂ നിന്ന് മണിക്കൂറുകൾ നിന്നാണ് ബിൽ അടച്ചൊക്കെ ഒരു ഞാനൊരു പിന്നെ ഒരു ജുദിക് ഉദ്യോഗസ്ഥയാണ് എന്റെ വീട്ടിൽ വേറെ അങ്ങനെ കൊടുത്തുവിടാനോ അടയ്ക്കാനോ ഒന്നും ആരും തന്നെ ഇല്ലായിരുന്നു ഞാന് തന്നെ വേണമായിരുന്നു പോകുവാനായിട്ട് അപ്പം അതിന് സമയം കണ്ടെത്തി ഒക്കെയാണ് പോയിക്കോണ്ടിരുന്നത് ഇത് ഇന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ആശ്വാസം വന്നു കാരണം നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ടുതന്നെ കാര്യങ്ങൾ മുഴുവനും ചെയ്യാം അടയ്ക്കാം ബിൽ ഒക്കെ അടയ്ക്കുക ഒക്കെ ചെയ്യാമായിരുന്നു പിന്നെ അതുകൊണ്ട് ഒത്തിരി പ്രയോജനം തന്നെയാണ് ഉള്ളത് എല്ലാ കാര്യങ്ങള്ക്കും ഇപ്പം ഒരു ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഉള്ള ആപ്പുകളൊക്കെ വരുന്നത് ഒത്തിരി സഹായകമാണ് ജോലിക്കാരെ സംബന്ധിച്ച് അത് സഹായകമാണ് അതുപോലെ തന്നെ വീട്ടിൽ ആൾ ഇല്ലാത്തവരെ സംബന്ധിച്ചും ഇങ്ങനത്തെ ഉള്ള ആപ്പുകൾ സഹായകമാണ് കാരണം രാവിലെ പത്തുമണിക്ക് തുടങ്ങുന്നതാണെങ്കില് നമ്മളൊരു പത്തുമണി ആവുമ്പം നേരത്തത്തെ അനുസരിച്ച് പോവുമ്പോള് നമുക്ക് ക്യൂ നിൽക്കണം ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ വലിയ ക്യൂ ആണെങ്കിൽ നമ്മൾ ചിലപ്പം ചില കാര്യങ്ങളൊക്കെ വന്നിട്ട് ചെയ്യാം എന്ന് കരുതി ആയിരിക്കും എളുപ്പം പോയി അടച്ചിട്ടുവരാം എന്ന് കരുതിയൊക്കെ ആയിരിക്കും പോകുന്നത് പക്ഷേങ്കില് അവിടെ ചെല്ലുമ്പോഴാണ് നീണ്ട ക്യൂ അതില്നിന്ന് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ചെയ്യാൻ പറ്റാതാവുന്നു പിന്നെ ആ ക്യൂവില് നില്ക്കുന്നതിലുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരുന്നു ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ ഒത്തിരി ബാധിക്കുന്ന കാര്യങ്ങളായിരുന്നു അപ്പം അതില് നിന്നൊക്കെ മാറ്റം പറ്റി ഇങ്ങനെയൊരു സംവിധാനം വന്നതോടുകൂടി ഒത്തിരി ഒത്തിരി നമുക്ക് മാറ്റങ്ങള് ഒത്തിരിയൊരു ഒത്തിരി നമുക്ക് ഒരു ആശ്വാസം ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് അതിനകത്ത് ചോദിച്ചാൽ ഇപ്പം എന്തെങ്കിലും ചെയ്യണം നമുക്കും ഇപ്പം നമ്മളിപ്പം സ്കൂളിലെ ജോലിക്കാരിയാണ് അല്ലെങ്കിൽ വേറെ ബാങ്കിലെ ജോലിക്കാരിയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി ചെയ്യുകയാണ് അപ്പം നമുക്ക് ആ ഇരിക്കുന്ന സ്ഥലത്ത് കൊ നിന്നുകൊണ്ടു തന്നെ നമ്മളെ കാര്യങ്ങള് ചെയ്യാം നമുക്ക് വീട്ടിൽ വരണമെന്നില്ല ഇതൊക്കെ നമുക്ക് ചെയ്യുവാനായിട്ട് ഉള്ളത് അപ്പം ഇങ്ങനത്തെ ഉള്ള സംവിധാനത്തില് നിന്ന് ഇങ്ങനെയുള്ള സംവിധാനം വന്നതോടുകൂടി ഒത്തിരി മാറ്റങ്ങൾ തന്നെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത് അപ്പം ഇതൊക്കെ ഇതൊക്കെ സ്ത്രീകൾ ഇപ്പം ഗള്ഫിലൊക്കെ ഉള്ള ആണുങ്ങൾ ഗള്ഫിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആണുങ്ങൾ വീട്ടിൽ ഇല്ലാത്തവരെ സംബന്ധിച്ച് പറയുവാണുള്ള സ്ത്രീകളെ സംബന്ധിച്ച് പറയുവാണെങ്കില് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അവര്ക്കും വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇപ്പം ആണ് എല്ലാ വീടുകളിലും ആണുങ്ങൾ ഉണ്ടോ ഇല്ല പല അവർ ജോലിക്ക് പോവുന്നവരായിരിക്കാം അല്ലെങ്കിൽ നാട്ടിലില്ലായിരിക്കാം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരില്ലേ അപ്പം ആ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിനുവേണ്ടി പോകുക അല്ലെങ്കില് ഇങ്ങനെ ക്യൂ നിന്നുള്ള കാര്യം ചെയ്യണമെങ്കിൽ അവര്ക്കും ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് കുട്ട് പിന്നെ കൊച്ചു പിള്ളേർ ഒക്കെയുള്ള സ്ത്രീകൾ അവര്ക്കാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഈ ക്യൂവിലൊക്കെ ഒത്തിരി നേരം നില്ക്കുവാനായിട്ട് സാധിക്കുമോ സാധിക്കില്ല അപ്പം അവര്ക്കൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് ആ ബുദ്ധിമുട്ടുകള് ഒക്കെയാണ് ഇന്ന് ആ ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഇന്ന് നമുക്ക് ഈ ഒരു കാരണത്താൽ ഈ ഒരു ആപ്പ് മൂലം നമുക്ക് ഒഴിവായിക്കൊണ്ട് ഇരിക്കുന്നത് എപ്പോഴും എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പണ്ട് ഇങ്ങനെയൊക്കെ ക്യൂ നിൽക്കുമ്പം നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് എന്റെ ദൈവമേ ഇതൊക്കെ വീട്ടിലിരുന്ന് ഒന്നു ചെയ്യുവാന് പറ്റിയിരുന്നു എങ്കിൽ ഇത്രയും സമയം എനിക്ക് ലാഭിക്കാമായിരുന്നു ഇത്രയും ബുദ്ധിമുട്ട് എനിക്ക് ഇല്ല ഒഴിവാക്കാമായിരുന്നു ഞാനീ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈ ക്യൂവിലൊക്കെ നിന്ന് മഴ ആണെങ്കില് മഴ വെയിലാണെങ്കിൽ വെയിൽ ഇതൊക്കെ ന ഇതൊക്കെ സഹിച്ച് പാടുപെട്ട് വന്നു നിൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തില് പലരും പല മനുഷ്യരും ആഗ്രഹിച്ചിട്ടുണ്ടാകാം ഇതിനൊക്കെ ഒരു മാറ്റം വന്നിരുന്നെങ്കിൽ എന്റെ വീട്ടിലിരുന്ന് എനിക്കൊന്ന് ഇതൊക്കെ ചെയ്യാന് സാധിച്ചിരുന്നെങ്കില് എന്നു പലരും ചിന്തിച്ചിട്ടുണ്ടാകാം പക്ഷേ അതോ അവരുടെയൊക്കെ ചിന്തയുടെ ഫലമോ പ്രാര്ത്ഥനയുടെ ഫലമോ എന്താണെങ്കിലും കൊള്ളാം ഇതിനൊക്കെ ലോകം ഇന്ന് മാറ്റം വരുത്തി നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ വീട്ടിൽ ഇരുന്നുകൊണ്ടുതന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ഒത്തിരി സാധിച്ചു അല്ലേ അപ്പോൾ ഇതൊക്കെ വലിയ മാറ്റങ്ങളല്ലേ അപ്പോൾ ഇതൊക്കെ ഒത്തിരി ചെയ്യുവാനായിട്ട് സാധിച്ചു ആ അത് അതിനി ഇനിയുള്ള സ് കാലത്താണെങ്കിലും ഇതുപോലെയുള്ള പല പല ആപ്പുകളൊക്കെ വരുവാ വരുവാണെങ്കിൽ അതൊക്കെ ഒത്തിരി പ്രയോജനപ്രദം ആണ്